മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിന്നെ സ്വാധീനം ചെലുത്തുന്ന റോഡുകളും വീടുകളുമാണ് കാരണം മുനിസിപ്പാലിറ്റി എന്നു പറഞ്ഞാൽ ഓരോ മുനിസിപ്പാലിറ്റിയിലും ഓരോ ആൾക്കാർക്കും വീടില്ലാത്തതോ അതുപോലെ ഒരു റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞത് അതൊക്കെ നല്ല രീതിയിൽ എല്ലാ സമയത്തും മുനിസിപ്പാലിറ്റി ഇടപെട്ട് ആ റോഡ് വൃത്തിയാക്കിക്കൊടുക്കുന്നുണ്ട് അതുപോലെ പഞ്ചായത്ത് പഞ്ചായത്തെന്നു പറഞ്ഞാൽ സ്വയം തൊഴിൽ നമ്മൾ സ്ത്രീകൾക്ക് പണിയില്ലാതെ ഇരിക്കുന്നവർക്ക് കുടുംബശ്രീ മുഖാന്തരം സ്വയംതൊഴിൽ കണ്ടെത്തുകയും പിന്നെ പഞ്ചായത്ത് നൽകുന്നത് ഒരു സ്വയംതൊഴിൽ തൊഴിൽ അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ ജീവിതത്തിലേറ്റവും വലിയ ഒരു തൊഴിലുറപ്പ് വന്നതിൽപ്പിന്നെ ഇപ്പോൾ നമുക്ക് ദാരിദ്ര്യം കുറേ ഒഴിവാക്കാൻ പറ്റും കാരണം ആദ്യമൊക്കെ നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് അത്ര കഷ്ടപ്പാടില്ല കാരണം കുടുംബശ്രീയും തൊഴിലുറപ്പും ഒക്കെ വന്നപ്പം തൊഴിലുറപ്പ് ഒരു മാസത്തിൽ എന്തായാലും ഒരു പതിനഞ്ച് പണിയെങ്കിലും ഒരു കുടുംബത്തിനു ലഭിക്കും ഒരു കുടുംബത്തിന് ലഭിക്കുകയാണെങ്കിൽ ബാക്കി പുറമെപ്പണിയും കൂടിപ്പോവുകയാണെങ്കിൽ നമ്മളെ ഒരു കുടുംബം എന്തായാലും അത്ര വലിയ കഷ്ടപ്പാടില്ലാതെ മുന്നോട്ട് പോവാം എന്നു ഞാൻ പറയുന്നത്